രാത്രിയിൽ പക്ഷി നിരീക്ഷണം പണ്ടൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് ഇപ്പം ചെയ്യാറില്ല കൂടുതലൊരു മൂങ്ങയാണ് കാണാറ് വേറൊരു പക്ഷികളെയൊന്നും കണ്ടിട്ടില്ല പിന്നേ അന്തിപ്പരുന്തെന്നു പറഞ്ഞ സംഭവത്തിനേ ഒരു വട്ടം കണ്ടിട്ടുണ്ട് സൗണ്ട് ആളേ കണ്ടില്ല സൗണ്ട് മാത്രം പിന്നെ കുഞ്ഞിക്കുഞ്ഞി പക്ഷിയെ കാണാറുണ്ട് മെയിനായിട്ട് വവ്വാൽ പിന്നെ മൂങ്ങ വെള്ളി മൂങ്ങ പരുന്ത് അന്തിപ്പരുന്ത് ഇങ്ങനത്തൊക്കെ പക്ഷികളെയാണ് കാണാറ് വേറെ പക്ഷികളെയൊന്നുമങ്ങനെ കാണാറില്ല അതും പണ്ടൊക്കെ വല്ലപ്പോഴേ നിരീക്ഷിക്കാറുള്ളു എപ്പോഴൊന്നും നിരീക്ഷിക്കാറില്ല സ്ഥിരമായിട്ടുള്ള പരിപാടിയല്ല മെയിനായിട്ട് ഇതാണ് മൂങ്ങയാണ് എക്സ്ട്രാ കണ്ടത് അതാണ് വിറ്റ് അല്ലാണ്ട് വേറെ കൂടുതലായിട്ട് കാണാറില്ല കൂടുതലായിട്ട് വവ്വാൽ വൗവ്വാലിനെയാണ് ഞാനേറ്റവും കൂടുതലും കാണാം എപ്പം നോക്കിയാലും കാണാൻ പറ്റും പക്ഷി പക്ഷികളേ ഒന്നും അങ്ങനെ കാണല് വവ്വാൽ എന്നു പറഞ്ഞാൽ പക്ഷിയുമല്ലാ ഒരു സസ്തനിയാണ് താണ് അങ്ങനെയൊക്കെ വരുന്നത് എന്തോ അങ്ങനെയൊക്കെ കാണാറുണ്ട് മെയിനായിട്ട് വവ്വാൽ വെള്ളി മൂങ്ങ വെള്ളി മൂങ്ങ ഇടക്കിടക്ക് കാണാറുണ്ട് പിന്നെ മൂങ്ങയേ ഇരുട്ടി കാണാറുണ്ട് അങ്ങനെയൊക്കെ കാണാറുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് എന്താക്കുമെന്നു പറഞ്ഞാൽ അപ്പം അങ്ങനത്തെ കാണാറുണ്ട് മെയിനായിട്ട് മൂങ്ങ വെള്ളി മൂങ്ങ പിന്നെ അന്തിപ്പരുന്ത് അന്തിപ്പരുന്തിൻ്റെ സൗണ്ടൊരു പ്രത്യേകതയാണ്